ഹലോ മാഡം ഇത് ഹോളിഡേ ടൂർ പാക്കേജിൻ്റെ ആളല്ലേ ഞാൻ നിത്യയാണ് താങ്കളുടെ സർവീസ് ബുക്ക് ചെയ്തിട്ടുണ്ടേനു ഇപ്പോൾ ഇവിടെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇവിടെ എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു ആ എത്തിയിട്ട് കുറച്ച് നേരമായി നിങ്ങളിനി എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത് ആ ഓക്കേ ഇത് കഴിഞ്ഞിട്ടെന്താണ് പ്ലാൻ ആ അപ്പോൾ ചായ കുടിക്കുക അങ്ങനെയൊന്നും ഇല്ലേ ഓരോ സ്പോട്ടുകൾ ഉണ്ടാവില്ലേ ലോക്കൽ ഏരിയയിൽ നിന്ന് ചായ കുടിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് നല്ല ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ നിർത്താം ആ ഓക്കേ ഈ തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട സ്പെഷ്യൽ ഫുഡ് അങ്ങനെയെന്തെങ്കിലുമുണ്ടോ ഓ അത് ശരി അത് ശരി അത് ശരി അല്ല നമ്മുടെ സ്റ്റേ ഒക്കെ എവിടെയാണുള്ളത് ആ റിസോർട്ട് റിസോർട്ട് ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ നമുക്ക് എങ്ങനെയാണ് റൂം ഒക്കെ എങ്ങനെയാണ് ഡബിൾ ബെഡ് കിട്ടുമോ ഷെയർ ചെയ്യേണ്ട ആ റൂം തന്നെ മതി ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കോൾ ചെയ്യാം നിങ്ങൾ വേഗം വരില്ലേ ആ ആ ഇല്ലില്ല താങ്ക് യൂ താങ്ക് യൂ ഓക്കേ ശരി